ആ ഞാനിവിടെ ഒറ്റപ്പാലത്തു നിന്നാണ് വിളിക്കുന്നത് എൻ്റെ പേര് ശരത് ആ നമ്മളീ ടുവീലേഴ്സിനൊക്കെ റെൻറ്റിന് കൊടുക്കുന്നെണ്ടെന്ന് ആ സ്ഥാപനം അല്ലേ ആ ആ നമുക്കിപ്പോൾ ഒരു രണ്ടു ദിവസത്തേക്കൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ടായിരുന്നേ പ്രീമിയം

ആ ആ ആ പെർ ഡേ വരുമ്പോൾ നമ്മൾ നമ്മൾ കൊണ്ട് വണ്ടി എടുത്തതിന്റെ അവിടെനിന്ന് അങ്ങോട്ട് നമുക്കുള്ള ഫോർട്ടി എയിറ്റ് ഹവേഴ്സ് അല്ലേ നോക്കുക അങ്ങനെയല്ലേ നോക്കുക ആ ഓക്കേ ഓക്കേ അതെ അപ്പോൾ നമ്മളതും ചേർത്തിട്ട് റെൻറ്റ് എമൗണ്ട് അങ്ങോട്ട് തരണമല്ലേ

ഇല്ലില്ല അത് നമ്മൾ നേരെ നോക്കിക്കോള്ളാം ആ ഓ ഓ കിലോമീറ്റേഴ്സ് കണക്കാക്കുമല്ലേ ആ ഇല്ല ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഒന്നും കടക്കില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ ആ ആ ആണല്ലേ ആ സർവീസ് അവൈലബിൾ ആണല്ലേ നമുക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുവെച്ചാൽ ആ നമ്മളൊരു ഒരു രണ്ടുദിവസത്തെ ട്രിപ്പ് ആയിരുന്നു അത് മൂന്നാർ ആ നമുക്കേതാണ് ബെറ്റർ വെച്ചാൽ അങ്ങനെ നോക്കാം ആ ഇല്ലില്ലാ വിഷയമില്ല വിഷയമില്ല ആ ആ ആ ഹിമാലയൻ ആകുമ്പോൾ നമ്മൾ റേറ്റും റേറ്റ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ കൂടില്ലേ ആ ഇവിടെ ഒറ്റപ്പാലം സൈഡ് ആണ് സിക്സ് ഫിഫ്റ്റി പെർ ഡേ ആ പെർ ഡേ അല്ലേ ആ ആ ആ

ആ ഞാൻ വിളിക്കാം വിളിക്കാം